ഹലോ ഓട്ടോ ഓടിക്കുന്ന ഷിബുച്ചേട്ടനല്ലേ ഞാനാണ് സന്തോഷിൻ്റെ മകൾ ആതിരയാണ് സംസാരിക്കുന്നത് എനിക്ക് നാളെ ദുബായിലേക്ക് ഒരു ഫ്ലൈറ്റ് ദുബായിലേക്ക് പോകണമായിരുന്നു അപ്പോൾ എനിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ ഒന്ന് പോകണമായിരുന്നു ഓട്ടോയിൽ അപ്പോൾ അതിന് എത്ര രൂപ വരും അത് ഇവിടെനിന്ന് എത്ര മണിക്ക് പോയാൽ എത്ര മണിക്ക് എത്താൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് എനിക്ക് പത്തു മണിക്കാണ് ഫ്ലൈറ്റ് അതിനുള്ളിൽ പോകണം സ്പീഡിൽ പോകുവാൻ പറ്റുമോ അതോ എന്താണ് ട്രാഫിക്ക് വല്ലതും ഉണ്ടാകുമോ ട്രാഫിക്കുള്ള ഏരിയയിൽക്കൂടിയാണോ പോവുക അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വിവരം നന്നായി കിട്ടണം എന്നാലേ എനിക്ക് ഫ്ലൈറ്റ് മിസ്സ് ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് യാത്രയൊക്കെ എങ്ങനെയുണ്ടാവും ഓട്ടോയിൽ പോവുമ്പോൾ അതോ വേറെ ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ പോകേണ്ടി വരുമോ അതോ ഓട്ടോയിൽ പോയാൽ കുഴപ്പമില്ലാണ്ട് പോകുവാൻ പറ്റുമോ ട്രാഫിക്കില്ലാണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് എന്താണ് ഒരു നാലു പേരുണ്ടാവും നാലുപേർക്ക് അന്നേരം കംഫർട്ടബിളായി ഇരുന്നു പോകുവാൻ പറ്റുമോ ഓട്ടോയിൽ എന്നൊക്കെ ഒന്ന് അറിയാനായിരുന്നു കേട്ടോ എന്താണ് എത്ര രൂപ ചാർജ് വരും അതോ ബസ്സിലോ ട്രെയിനിലാണോ കമ്മി ചാർജ് വരിക അതോ ഇതിലാണോ ചാർജ് കൂടുതൽ വരിക കൂടുതൽ വന്നാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് ടൈമിൽ കൊണ്ട് എത്തിച്ചാൽ മതി ഞങ്ങൾക്ക് എന്താണ് ആ ഒരു കയറണതിന് കുറച്ചു മുമ്പായിത്തന്നെ എത്തണമായിരുന്നു ട്രാഫിക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു നല്ല രീതിയ്ക്ക് ഞങ്ങളെ അവടെ കൊണ്ട് എത്തിക്കണം അങ്ങനെ എത്രയാണെന്നും എല്ലാം ഒന്ന് പറഞ്ഞു തരാമോ അതോ ട്രെയിനിൽ പോയാൽ നല്ല രീതിയ്ക്ക് പോകുവാൻ പറ്റുമോ ബസ്സിലാണെങ്കിലും ട്രാഫിക്ക് ഒന്നും ഇല്ലാണ്ട് പോകുവാൻ പറ്റുമോ എന്നൊന്ന് അറിയണമായിരുന്നു നിങ്ങളുടെ ഇത് ചോദിച്ചിട്ട് വേണം അറിയാൻ ഓട്ടോ നല്ല സ്പീഡിൽ പോകുമോ നല്ല രീതി ഞങ്ങളെ സ്പീഡിൽ അവിടെ കൊണ്ട് എത്തിക്കുമോ ഒരു കുഴപ്പമില്ലാണ്ട് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് ചാർജ് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ലയെന്ന് പറയുന്നു